നമ്മുടെ ഗ്രാമത്തില് ഇപ്പോള് അതുമാ പല മത വിഭാഗങ്ങളുണ്ടെങ്കിലും പത പല മതങ്ങൾക്കും അതിൻ്റെതായ സംസ്കാര ചടങ്ങുകളാണ് നടത്തുന്നത് നമ്മള് ക്രിസ്ത്യൻ വിഭാഗത്തില് പെടുന്നവർക്ക് മരിച്ച വ്യക്തിയുടെ വീട്ടില് ഈ ചടങ്ങുകൾ ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം എല്ലാവരും ആ ആ ശ ശവസംസ്കാരം നടക്കാനുള്ള ഏത് പള്ളിയാണ് പള്ളിയിലേക്ക് ആണോ അവിടെ കൊണ്ടുവരികയും അവിടെ പള്ളിക്കകത്ത് വെച്ച് കാർമ്മികൻ അതിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയും അതിനുശേഷം സെമിത്തേരിയില് കൊണ്ടുവന്ന് അവരുടെ അടുത്ത ബന്ധുമിത്രാദികൾ ആ അന്ത്യചുംബനം നൽകുകയും അതിനുശേഷം കല്ലറ വെഞ്ചരിച്ച് കല്ലറയില് അവരെയും അടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ നാല്പത്തിയൊന്ന് ദിവസം അവരുടെ വീടുകളിൽ നിന്ന് കട്ടില് ഒരുക്കി ബൈബിൾ വെച്ച് ഈ നാല്പത്തിയൊന്ന് ദിവസം അവർക്ക് വേണ്ടി കുർബാന പ്രാർ കുർബാന നടത്തി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങളുമെല്ലാം ചെയ്താണ് ചെയ്താണ് ക്രിസ്തീയ വിഭാഗത്തിലുള്ള ശവസംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നത് മറ്റ് വിഫാ മതക്കാരുടെ പൂർണ വിവരം എനിക്കറിയത്തില്ല എങ്കിലും മുസ്ലിം മുസ്ലീം മതത്തിൽപ്പെട്ടവരും ഇതുപോലെ മരിച്ചതിന് ശേഷം അവരെ തുണിയിൽ പൊതിഞ്ഞ് അവരെ മഞ്ചത്തിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോയി അത് ഖബറടക്കം ചെയ്യുകയാണ് അതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല ഹിന്ദു ആചാര പ്രകാരം പ്രായമായവര് ഏറെക്കുറെ ഇപ്പോള് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ കർമങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും ശേഷം ഇത് ദഹിപ്പിച്ച് അത് അതിൻ്റെ അസ്ഥി എടുത്ത് കുടത്തിലെങ്ങാൻ കുടത്തിൽ വച്ച് പിന്നെ ഇവര് പിന്നെ ഇവിടെ കായ കടലിൽ കൊണ്ട് ഒഴുക്കി വിടുന്നൊരു രീതിയും ആണ് നടത്തുന്നുവെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പല വിഭാഗത്തി മത വിഭാഗത്തിലും പല പല രീതിയിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ക്രിസ്ത്യൻ രീതിയില് അവർക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാ വർഷം അവർക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനകളിലും അതിനു വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി വീട്ടിൽ ചെയ്യേണ്ട ശുശ്രൂഷകള് എല്ലാം ചെയ്ത് അതിനു ശേഷം പള്ളിയിലായാലും കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന സഹാ ചടങ്ങുകളെല്ലാം ചെയ്തതിനു ശേഷമാണ് അവരെ അടക്കമൊക്കെ ചെയ്യുന്നത് പിന്നെ ആ വീട്ടില് നാല്പത്തിയൊന്ന് ദിവസവും അവര് തിരികൾ കത്തിച്ച് തിരി കത്തിച്ചുവച്ച് കട്ടിലൊക്കെ ഒരുക്കി അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങുകയും ചെയ്യും ഈ ഒരുങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് സംസ്കാര ചടങ്ങുകളെല്ലാം വളരെ വൃത്തിയായിട്ടും പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവരും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ ഉള്ള പല മതത്തിലും പല രീതിയില് അവര് കൈകാര്യം ചെയ്ത് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ രീതിയില് ദഹിപ്പിക്കും ചിലവരെ കുഴിയിലടക്കം ചെയ്യും മുസ്ലീംസിനാവുമ്പോള് അവര് ഖബറടക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ മൂന്നാം പത്തി എന്ന അവരുടെ ചടങ്ങാ അത് നേർച്ചയുണ്ട് അവര് നടത്തുന്നത് അതിനകത്ത് അവരുടെ അവർക്ക്ടെ പള്ളിയില് ഉസ്താദന്മാരൊക്കെ വന്നിട്ട് അവർക്കുടെ ച ചടങ്ങ് ചെയ്യുകയും പിന്നെ അന്നവർക്ക് എല്ലാവരെയും വിളിച്ച് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് മുസ്ലിം സമുദായത്തിലുള്ളത് ഇതുപോലണക്ക് തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏഴിൻ്റെ അന്നോ ഒമ്പതിൻ്റെ അന്നോ നാല്പ്പത്തി ഒന്നിൻ്റെ അന്നോ ശുശ്രൂഷണം നടത്തി എല്ലാവരെയും വിളിച്ച് അവർക്ക് വീട്ടില് ഒരു ചെറിയ ചടങ്ങ് നടത്തുന്ന രീതി നമ്മുടെ സംസ്കാരത്തില് നമ്മുടെ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്